നീന്തൽ

നമ്മുടെ

തീർച്ചയായിട്ടും പലവിധ അസുഖങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നമുക്ക് ഒരു കാര്യമാണ് അത് എനിക്ക് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട് നമ്മൾ ബാത്റൂമിൽ പോയിട്ട് കുളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു എനർജി നമുക്ക് കിട്ടത്തില്ല ഇത് സത്യസന്ധമായ കാര്യമാണ് സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണിത് അതിനെ ഒരിക്കലും തള്ളിക്കളയാൻ സാധ്യമല്ല

എന്നെ സംബന്ധിച്ചുള്ള

കുട്ടനാട്ടിൽ

കുഴപ്പവുമില്ല നദിയും